ഹലോ ഇത് കോളേജ് പ്രിൻസിപ്പളാണ് വിളിക്കുന്നത് കേലബല്ലേ ടീച്ചറല്ലേ അതേ ഞാൻ വിളിച്ചത് ഇവാലുവേഷൻ എവിടം വരെ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാനായിരുന്നു ഫീഡ്ബാക്ക് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അതോ ഇനി വാങ്ങിക്കാൻ കിടക്കുവാണോ ആ പിന്നെ ടീച്ചർ ഏതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട് ആ അതായത് വീണ്ടും ഫീഡ്ബാക്ക് എങ്ങനെയാണ് അവറേജ് ആണോ എങ്ങനെയാണ് അപ്പം ഇനി ഈ മോശമായിട്ട് വന്ന പിള്ളേർക്ക് എന്തേലും ഇംപ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെൻറ്റായിട്ട് എന്തേലും ചെയ്യുന്നുണ്ടോ എന്തോ കേട്ടില്ല ഒന്നും കൂടെ പറയാമോ ആ അത് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞങ്ങൾ മിക്കവാറും ഈ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ടീച്ചർമാർക്കുമായിട്ട് ഒരു മീറ്റിങ് ഉണ്ടാക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ ഈ ടീച്ചർമാർ വാങ്ങിച്ച ഇവാലുയേഷൻ അല്ലേൽ ഫീഡ്ബാക്ക് അവരുടെ പിള്ളേരുടെ കൈയ്യിൽ നിന്ന് വാങ്ങിച്ച ഫീഡ്ബാക്കെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആ ഹാ ടീച്ചർ വരെ പലർക്കും ഹെഡ് ആയതുകൊണ്ട് ടീച്ചറിൻ്റെ സാറ് തന്നെ ടീച്ചർമാരോട് എങ്ങനേലും ഇത് ഈ ന്യൂസ് അറിയിക്കണേ അപ്പം എന്തൊക്കെയാണ് അറിയിക്കണം എന്ന് ടീച്ചറിന് അറിയാവോ ആ പിന്നെ ആ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് സാറ് വേണേ സജസ്റ്റ് ചെയ്യാം ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണേൽ എക്സ്ട്രാ എക്സ്ട്രാ ക്ലാസ്സ് വേണേൽ വെക്കാൻ പറ്റും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റായിട്ട് വേണേൽ എക്സ്ട്രാ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് വെക്കാം അപ്പം പിള്ളേർക്ക് ഈ വരുന്ന കുറഞ്ഞ ഈ വരുന്ന എക്സാസിന് കുറഞ്ഞ മാർക്ക് കിട്ടുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്നൊരു എക്സാമായിട്ടിത് നടത്താൻ പറ്റും എന്ത് വേണം സാറതിൻ്റെ

എന്നാൽ പിന്നെ നമുക്കന്ന് മീറ്റിങ്ങ് ഉണ്ടേൽ കാണാം ബൈ